ഇരുപത്തി നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എണ്പത് ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആറ് രണ്ട് രണ്ടായിരത്തി മൂന്ന് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ആറ് ഇരുപത്തി ഒന്പത് മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട്